ഹലോ ഇവിടെ തന്നിരിക്കുന്നത് മലയാളത്തിലെ ഭാഷാഭേദങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്നുള്ളതാണ് മലയാളത്തിലെ ഭാഷാഭേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് മലയാളമാണല്ലോ നമ്മുടെ മദർ ടങ് എന്നു പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മലയാളത്തിലെ മലയാളം എന്നു പറയണത് നമ്മുടെ മദർ തങ്ക് ആയതുകൊണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളതുണ്ടല്ലോ നമ്മൾ മറ്റു രാജ്യങ്ങളിൽപ്പോയാലും നമ്മുടെ മലയാളഭാഷയെ മറക്കരുതെന്നുള്ളതാണല്ലോ മാതൃ മാതൃഭാഷ അമ്മതൻ നമ്മുടെ ഭാഷ മാതൃഭാഷതൻ അമ്മതൻ പോലെതൻ എന്നുള്ളതാണല്ലോ അങ്ങനെ എന്തൊരു സെൻ്റൻസാണ് മലയാള ഭാഷയെന്നു പറയണത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഭാഷ തന്നെയാണ് മലയാള ഭാഷയെന്ന് പറയണത് ഒരുപാട് കവികളും കവയത്രികളൊക്കെ എഴുതിയിരിക്കുന്നതും കവിതകളും നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ ആ രാജ്യത്തെക്കുറിച്ചൊക്കെ മലയാളത്തിൽ ഒരുപാട് കവികൾ കവിതകളും കഥകളും ലേഖനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഒരു മലയാളത്തിൽ ഒരു നോവലെന്നു പറയണതുതന്നെ പ്രശസ്തമായ നോവലുകൾ തന്നെയാണ് ഒരുപാട് മലയാളത്തിൽത്തന്നെ ഒരുപാട് ക്രിയകളും പ്രക്രിയകളും ഭാഷാഭേദങ്ങൾ എന്നു പറയുമ്പോൾ മലയാളത്തിലെ ഭാഷാഭേദം എന്നു പറയുമ്പോൾ ക്രിയകൾ പ്രക്രിയകൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതിപ്പം നമ്മുടെ ഓരോ കവികളാണെങ്കിലും ഭാഷയെ വ്യക്തമാക്കിത്തന്നെ വ്യക്തമാക്കിത്തന്നെ മലയാളഭാഷയെ ഇങ്ങനെയാണ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണത് വന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഓരോ കവികളും കവയത്രികളൊക്ക നമ്മളോട് പറഞ്ഞുതന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരായാലും കുമാരനാശാനായാലും കുമാരനാശാൻ്റെ വരികളൊക്ക ഓർക്കുമ്പോൾത്തന്നെ നമുക്കെന്താ പറയുക മലയാള ഭാഷയോടൊരു അഭിമാനം തോന്നുന്നു നമ്മൾ മലയാളികളായതിൽ അഭിമാനിക്കാം എന്നുള്ളതാണ് വള്ളത്തോളിൻ്റെ ആയാലും കുമാരനാശാൻ്റെയായാലും ഓരോരുത്തരുടേയും വരികളിലൂടെ മലയാളഭാഷ മലയാള ഭാഷയെക്കുറിച്ചുതന്നെ പറഞ്ഞിട്ടുണ്ട് കവികളാണെങ്കിലും കവയത്രികളാണെങ്കിലും ഇപ്പോൾ കമലാസുരയ്യ തന്നെ മലയാള ഭാഷയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്നുള്ളതുതന്നെ അപ്പോൾ നമ്മൾ ഓരോരുത്തരും മലയാളികൾ ആയതിൽ നമ്മൾ എന്തു ചെയ്യുക ഓരോരുത്തരും അഭിമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് മലയാള ഭാഷയെ ഒരിക്കലും നമ്മളെന്തു ചെയ്യാൻ പാടില്ല മറ്റു ഭാഷകൾ പഠിക്കേണ്ടയെന്നല്ല അതുപോലെത്തന്നെ മലയാള ഭാഷയേയും നമ്മളെപ്പോഴും മുറുകെ തന്നെ പിടിച്ച് നമ്മൾ മലയാളികളായിത്തന്നെ അഭിമാനിച്ചുകൊള്ളുക എന്നുള്ളതാണ്